പാൽക്കുളമേട് ഹൈക്കിംഗിന് പോയപ്പോൾ ഞാൻ വഴി തെറ്റി പോയിട്ടുണ്ട് വഴി തെറ്റി പോയപ്പോൾ ഒരുപാട് സമയം വഴി തെറ്റി വഴി തെറ്റി കുറേ നടക്കേണ്ടി വന്നു ഒത്തിരിയേറെ അട്ടകളും മറ്റുള്ളൊരു സ്ഥലമാണ് പാൽക്കുട പാൽക്കുളമേടേ ഇടുക്കിയിലുള്ള പാൽക്കുളമേട് പാൽക്കുളമേട് ഹൈക്കിംഗിന് പോയപ്പോൾ വേണ്ടത്ര മുൻകരുതലുകൾ ഞങ്ങളടുത്തിരുന്നില്ല കാരണം പെട്ടെന്നുള്ള തീരുമാനമായതു കൊണ്ടു തന്നെ ഹൈക്കിംഗ് ഷൂസും മറ്റും വീടുന്നെടുക്കാൻ മറന്നു പോയി അപ്പോൾ ഹൈക്കിംഗിനായി തന്നെ പോകാതെ ഹൈക്കിംഗിന് പോയതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കൃത്യമായ മുൻകരുതലുകളെടുക്കാതെ ഹൈക്കിംഗിനു പോകുന്നത്രയും പ്രശ്നം വേറൊന്നുമില്ല കാരണം നമുക്ക് ന്യൂസുകളിലൊക്കെ കാണാം ഒരുപാട് പേരൊക്കെ പെട്ടു പോയി മലയുടെ മണ്ടേ കുടുങ്ങിപ്പോയി അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണാൻ പറ്റാറുണ്ട് അപ്പം ഹൈക്കിംഗിന് പോകുമ്പോളൊരിക്കലും മുൻകരുതലെടുക്കാതെ പോവാ പോകരുത് തിരിച്ചു വഴി കണ്ടു പിടിച്ചത് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ വന്ന വഴി ഏകദേശം മനസ്സിൽ കണ്ടു കണ്ടു കണ്ടങ്ങ് പോന്നു ലാസ്റ്റ് ഒരു വഴി കണ്ട് പിന്നെ ആ വഴിയുടെ പിന്നാലെ നടക്കുകയാണ് ചെയ്തതു കാരണം വഴിയിലേക്കിറങ്ങി കഴിയുമ്പോൾ നമുക്കറിയാലോ എങ്ങോട്ടാണ് പോകണ്ടേ ഏകദേശം അറിയാമെന്നുള്ള രീതിയിൽ മുന്നോട്ടു പോകയാണ് ചെയ്തത് ഒരു വലിയ ട്രക്കിംഗിനു പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വേണ്ടത്ര ഗിയേഴ്സെടുത്തിരിക്കണം പ്രധാനമായിട്ടും ഹൈക്കിംഗ് ഷൂസ് ഹൈക്കിംഗ് ബാഗ് വെള്ളം ഒരു റോപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളെടുത്തിരിക്കണം ഇതൊന്നും എടുക്കാത്ത സാനിറ്റൈസർ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമെടുക്കാതെ ഒരു ട്രക്കിംഗിന് പോകുന്നൊരു സാഹചര്യത്തിൽ ഒരു പക്ഷെ നമ്മളൊരു സ്ഥലത്ത് കുടുങ്ങിപ്പോയാൽ വെള്ളം കിട്ടാതെ ആ അവശതയിലേക്കെത്താനുള്ള സാദ്ധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുങ്ങി പോകുന്ന സ്ഥലത്തിൻ്റെ സ്ഥലത്തു നിന്നു തിരിച്ച് വരുന്നതെങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം പറ്റാതെയുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെ പല സാഹചര്യത്തിലൂടെ പെട്ട് പോകാനുള്ള സാദ്ധ്യതയുണ്ട് അപ്പം ഹൈക്കിംഗിന് പോകുമ്പോളെന്തായാലും കൂടെ ബേസിക്കായിട്ടു വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തിരിക്കാണ് പിന്നെ അറിയാത്തൊരു സ്ഥലത്ത് ഹൈക്കിംഗിനു പോകുമ്പോൾ അറിവുള്ളൊരാളെ കൂടെ കൊണ്ട് പോകുന്ന എപ്പോഴും നന്നായിരിക്കും കാരണം അയാൾക്കാണ് സ്ഥലത്തിനെ കുറിച്ച് നന്നായിട്ടറിയായിരിക്കും അപ്പം അയാൾക്കറിയാവുന്നൊരവസ്ഥയിൽ അയാൾ പറഞ്ഞ് തരും ഇങ്ങനൊരു അപകടമുണ്ടിവിടെ ഇങ്ങനുള്ളപകടം നമ്മൾ മുന്നിൽ കാണണം ഇത്രയും കാര്യങ്ങളെടുക്കണം എന്നു കൃത്യമായിട്ട് പറയാനുള്ള സാദ്ധ്യതയുണ്ട് അതേ സമയം അറിയില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റക്ക് ചെന്നു പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള വഴി അറിയണന്നില്ല തിരി അവിടെത്തന്നെ പെട്ട് ദിവസങ്ങളോടെ ദിവസങ്ങളോളം പെട്ടു മരണത്തിലേക്കു വരെ പോകാനുള്ള സാദ്ധ്യയുണ്ട് അപ്പം ഒരു ട്രക്കിംഗിന് പോകുന്നവസ്ഥയിൽ തീർച്ചയായിട്ടും അറിവുള്ളൊരാളെ കൂടെ കൂട്ടുകയോ കൂടുതൽ സാഹസങ്ങളിലേക്ക് കാലെടുത്തു വെക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം